വീണ്ടും വീണ്ടും എഴുതാൻ ആഗ്രഹങ്ങൾ ഉള്ളത് ഗ്രാമീണതയെ കുറിച്ചാണ് എത്ര എത്ര വി വർണ്ണിച്ചാലും വിവരിച്ചാലും മതിയാവാത്ത ഒന്നാണ് നമ്മുടെ ഗ്രാമീണത പുഴകളെ കുറിച്ച് കാടുകളെ കുറിച്ച് കൃഷികളെ കുറിച്ച് കുട്ടികളെ കുറിച്ച് നമ്മുടെ നാടിനും എല്ലാറ്റിനെയും കുറിച്ച് ശാന്തമായ ഒഴുകുന്ന പുഴകളെ കുറിച്ചും തോടുകളെ കുറിച്ചും നമ്മുടെ ക്ഷേത്രങ്ങളെയും ജനങ്ങളെയും എല്ലാവരെയും കുറിച്ച് എഴുതിയാലും എഴുതിയാലും മടുപ്പില്ല മറക്കില്ല മടുക്കില്ല സമൂഹത്തോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് മതത്തിൻ്റെ പേരിൽ അടി കൈകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബാല്യവിഹാ വിവാഹങ്ങൾ തട്ടിക്കൊണ്ട് പോക്ക് അതുപോലെ ക്രൂരതകൾ കുട്ടികളെ കൊന്നും പീഡിപ്പിച്ചും പിച്ചി ചീന്തുന്ന ഈ സമൂഹത്തോട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇത് കഥകളിലൂടെയും കവിതകളിലൂടെയും അവരിലൂടെ എത്തിച്ച് അവരെ ബോധവാന്മാരാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്